ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട ടൂത്പേസ്റ്റിൽ ഒന്നായ കെ പി നമ്പൂതിരീസിൻ്റെ റിവ്യൂയെ കുറിച്ചാണ് കെ പി നമ്പൂതിരീസ് ഒരു ആയുർവേദിക് ടൂത്ത്പേസ്റ്റ് ആണ് അതിലടങ്ങിയിരിക്കുന്നത് അശ്വഗന്ധ ഗ്രാമ്പൂ പട്ട ഏലക്കായ തുടങ്ങിയവയാണ് അത് നമുക്ക് ആദ്യത്തെ ഉപയോഗത്തിൽത്തന്നെ നല്ല റിസൾട്ട് ആണ് തരുന്നത് അതുപോലെതന്നെ പല്ലുകളുടെ തിളക്കത്തിനും വൈറ്റിനിങ്ങിനും നല്ല വെള്ളനിറം നൽകുന്നതിനും വേണ്ടി അതിയായി സഹായിക്കുന്നുണ്ട് അതുകൂടാതെ പല്ലുകളുടെ മോണക്കും പല്ലുകളുടെ ഇനാമലിനും നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട് ഇതിനു പുറമേ നമ്മുടെ പല്ലിൻ്റെ ശക്തിക്കും നമ്മുടെ പല്ലിൻ്റെ പല്ലിൽ നിന്നും ഉണ്ടാവുന്ന രക്ത സ്രാവങ്ങൾ തടയാനും വേണ്ടിയിട്ടുമുള്ള ഒരു പ്രേത്യേകതരം പച്ച മരുന്നിൻ്റെ ഉപയോഗം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ടൂത്ത്പേസ്റ്റിനെ അപേക്ഷിച്ച് ഇത് ഉപയോഗിക്കുമ്പോൾ യാതൊരു പൊള്ളലോ പുകച്ചിലോ നമുക്കനുഭവപ്പെടുന്നതല്ല അതുപോലെതന്നെ ഒരു തരത്തിലും കെമിക്കൽ ഇതിൽ അടങ്ങിയിട്ടില്ല അത് കാരണം നമുക്ക് വളരെ ഒറ്റ നോട്ടത്തിൽത്തന്നെ നമുക്കിത് ആർക്കും സജസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്